ആ പറയൂ ചേട്ടാ അതെ വീട് വേണം നമുക്കൊരു ഒരു രണ്ടുനില വീടാണ് വേണ്ടത് ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തിന്റെ ഉള്ളിൽ

വിലയ്ക്ക് മേടിക്കാനാണ് ആർച്ച് വീടാണ് വേണ്ടത് ആർച്ച് വീട് നമുക്ക് ആ എല്ലാ ഫെസിലിറ്റീസും വേണം ഇപ്പോൾ കിണറാണെങ്കിലും എല്ലാം കൂടിയ ഒരു വീടാണ് വേണ്ടത് കുറച്ച് മാറിയാലും കുഴപ്പമില്ല ടൗൺ എക്സാക്ട് ടൗൺ വേണമെന്നില്ല ഓക്കേ ആ

നമുക്ക് ആ പിന്നെ നമുക്ക് ഓക്കേ ഓക്കേ

ഓക്കേ ഞങ്ങൾക്ക് ആ ഓക്കേ ഓക്കേ ഓക്കേ നമുക്ക് എന്താണ് വീടിനോട് ചേർന്ന് കുറച്ച് സ്ഥലം കൂടി ഉണ്ടാവുമോ കൃഷി ചെയ്യാൻ പറ്റുന്ന ആ കൃഷി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ

അതെ അതെ ഓക്കേ ഓക്കേ നമുക്ക് ഇപ്പോൾ ഇതിന് ഓക്കേ നമുക്കിപ്പോൾ ഇതിന് എത്ര റേയ്റ്റ് വരുന്നുണ്ട് ഓക്കേ നമുക്കിപ്പോൾ ഇതിനു മൊത്തം എത്ര റേയ്റ്റ് വരും

ഇല്ല നമുക്ക് ആ നമുക്കിപ്പോൾ മൊത്തമായിട്ട് ഉണ്ട് ഓക്കേ നമുക്ക് മൊത്തമായിട്ട് എടുക്കാം നമുക്ക് അപ്പോൾ അതിന് എന്തെങ്കിലും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നാൽ ഉപകാരം ഉണ്ട്

അതെയല്ലെ ഓക്കേ ഓക്കേ അതെ സെറ്റാണ് എന്തായാലും നോക്കാം ഇല്ല കുഴപ്പമില്ല നമുക്ക് നോക്കാം അത് ഓക്കേ ഞാൻ അവരോട് സംസാരിക്കാം എന്നിട്ട് നമുക്ക് ഒരു അഡ്വാൻസ് കൊടുക്കാം അതു കഴിഞ്ഞിട്ട് നമുക്ക് ഉറപ്പിക്കാം ഓ മതി മതി എന്നാൽ

ഓക്കേ ഓക്കേ ശരി ശരി ആ ശരി നമുക്ക് എന്തായാലും നോക്കാം

ആ ശരി ശരി നമുക്കെന്തായാലും നോക്കിയിട്ട് ബാക്കി തീരുമാനിക്കാം ഓക്കേ ഓക്കേ ശരി അത് ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് ഞാൻ എന്തായാലും വിളിക്കാം അതു കഴിഞ്ഞിട്ട് ഓക്കേ അതെയല്ലെ ഓക്കേ ശരി ശരി ശരി ശരി